ഇന്ത്യൻ സിൻമെ സിൻമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ നിന്നും വളരെ വ്യത്യസമാണ് ഇൻ ഇപ്പൊഴത്തെ സിൻമക്കെ ഇപ്പോൾ ചലച്ചിത്രമെടുത്ത് നോക്കയാണെങ്കിൽ കളറിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നത് ഇപ്പോൾ കളറിലേക് മാറീരിക്കുന്നു ഇന്ത്യൻ സിനിമ വളർന്ന്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറങ്ങിയ പുതിയ പടം ആട് ജീവിതം അതിൽ പൃഥ്വിരാജിൻ്റെ കഷ്ടപ്പാട് നമുക്കെല്ലാവർക്കും കാണാം അതിനുവേണ്ടി എന്തിനും തയ്യാറാണ് ഇപ്പോഴത്തെ നടന്മാർ എനിക്കിഷ്ടപ്പെട്ട നടൻ പൃഥ്വിരാജാണ് കാരണം അദ്ദേഹം എടുക്കുന്ന പരിശ്രമോം കാര്യങ്ങളും വളരെ വലുതാണ് അതോണ്ടന്നെ പൃഥ്വിരാജ് എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്കിഷ്ടപ്പെട്ട നടി കല്യാണി പ്രിയദർശനാണ് വളരെ നല്ല അഭിനയമാണ് അവൾ കാഴ്ചവെക്കുന്നത് ഇഷ്ടപ്പെട്ട ഗായകനെക്കുറിച്ച് പറയാൻ യേശുദാസാണ് യേശുദാസിൻ്റെ പാട്ടെന്ന് പറയുന്നത് വളരെ മനോഹരമായാണ് കേട്ടിരുന്ന് നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു പാട്ട് തന്നെയാണ് യേശുദാസിൻ്റെത് പാട്ടിനെ കുറിച്ച് പറയാൻ പണ്ടത്തെ സിൻമേൽ പാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സിനിമാ പാട്ട് കാരണം പാട്ടൊട്ടെ തല്ലുമാല സിൻമേൽ ഇതൊക്കെ നോക്കിയാൽ അറിയാം പാട്ടിനെ കുറിച്ച് പണ്ടത്തേനിന്നും വളരെ അധികം മാറീരിക്കുന്നു ഇപ്പോഴത്തെ പാട്ടുകൾ ഇന്ത്യൻ സിൻമ വളർന്നു കൊണ്ടിരിക്കയാണ് അതിൻ്റെ ഓരോ പങ്കും ഓരോ സിൻമാ നടന്മാർക്കുള്ളതാണ് ഓരോരുത്തരുടെ എഫ്ഫേ എഫ്ഫെർട്ടാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്